ഈ കാലഘട്ട കാലഘട്ടത്തിൽ മല മലയാളഭാഷ ആരുംതന്നെ താൽപ്പര്യം കാണിക്കുന്നില്ല അപ്പം എപ്പോഴും ഗൂഗിളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് മലയാളഭാഷ കാര്യങ്ങളെല്ലാം പെട്ടെന്നറിയാനുള്ള ഇപ്പോഴത്തെയൊരു സാഹചര്യം മറ്റുള്ള അതിനകത്ത് മലയാളഭാഷയുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഗൂഗിളിൽ സെർച്ചിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ഈ സാഹചര്യംകൊണ്ട് മലയാളഭാഷയെ കീഴോട്ട് കീഴോട്ട് പോവുകയാണ് ഇപ്പം കൃത്യമായി വായിക്കുന്നവരോ ലൈബ്രറിയുടെ ഉപയോഗമൊക്കെ തുലോം കുറവാണ് റെവറൻസ് ബുക്കിനോ ഒന്നും പണ്ടുകാലത്ത് മലയാളം റെഫ്രൻസ് ബുക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇപ്പം ഉടനെത്തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മലയാളഭാഷയുടെ കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും ഗൂഗിളിൽ കിട്ടുന്നതുകൊണ്ട് ഇപ്പം നമുക്കൊന്നും വായന വായനാശീലം തുലോം കുറവായിട്ടുള്ളൊരു കാലഘട്ടത്തിലോട്ടാണ് നമ്മളിപ്പം മുന്നോട്ടുപോകുന്നത് അതുകൊണ്ട് അപ്പം ഈ കാലഘട്ടത്തിലതൊന്നും പോരാ അതായത് നമ്മൾ മലയാളഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ മുതലുള്ള അതായത് പഴയ ഒരു കവിതയോ കഥയോ ഒന്നും വായിക്കാനോ ഒന്നും ഇപ്പം ആർക്കും താൽപ്പര്യം ഇല്ലാത്തൊരു കാലഘട്ടമാണ് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും മുന്നോട്ട് പോവേണ്ട ആവശ്യങ്ങളില്ല ഇപ്പം മലയാളഭാഷയിപ്പം തുലോം പിന്നോക്കാവസ്ഥയിലാണ് അതുപോലെത്തന്നെ വായിക്കുന്നവർ മാത്രമേ കഥയെഴുതാനും അതിനെ വിശകലനം ചെയ്യാനും സാധിക്കുകയുളളൂള്ളു ഓ എൻ വിയെപ്പോലെയുള്ള ആൾക്കാർ ഇനിയടുത്ത തലമുറയിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യംപോലും നമുക്ക് കൃത്യമായി അറിയാൻ പറ്റാത്തെയൊരു സാഹചര്യമാണ് ആരുംതന്നെ വായനാശീലം ഉള്ളവരല്ല വിദ്യാർത്ഥികളിൽ വായനാശീലം ഉള്ളവർ തുലോം കുറവാണ് എല്ലാവരും മൊബൈലും എല്ലാവരുടേയും എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പത്തുള്ളതുകൊണ്ട് വായന പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളഭാഷയുടെ അവതരണവും മലയാളഭാഷയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും മലയാളികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്